വീടിനു ചുറ്റുമുള്ള പരിസരം വൃത്തിയാക്കുന്നതിന് ഞങൾ എല്ലാ ദിവസവും അത് വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട് അത് കൂടാതെ പ്ലാസ്റ്റിക്കുകളും അത് എല്ലാം ഞങൾ ഒരു ഇതില് ആക്കിവെച്ചിരുന്ന് ഇവിടെ പഞ്ചായത്തുകാര് കൊണ്ടുപോകും എല്ലാമാസവും അവര് വന്ന് എടുത്തുകൊണ്ട് പോകും അത് കൂടാതെ മാലിന്യസംസ്കരണത്തിൻ്റെ ഒരിതും ഉണ്ട് അതിലും ഇട്ടേക്കും പിന്നെ ഞങൾ വീടിനു ചുറ്റും നല്ല വൃത്തിയായിട്ടെല്ലാം തൂത്ത് വൃത്തിയാക്കി ഇടും